അതായത് നമ്മൾ ഈ മത്സ്യം മത്സ്യം പിടിക്കാൻ അതായത് മത്സ്യത്തിന് ഏതു തരം ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മൾ ചെറിയ ചെറിയ ഈ എന്താ പറയുക ചെറിയ ചെറിയ വഞ്ചികൾ പോലത്തെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് കാരണം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ചെറിയ ചെറിയ ബോട്ടുകൾ ആണ് നമ്മൾ അതിൽ അതായത് നമ്മൾ ഇങ്ങനെ തുഴയുന്ന പോലത്തെയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മൾ വലിയ വലിയ മീൻ പിടിക്കുന്ന ഒരു ഇതിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾക്ക് കുറേ കുറേ അധികം മീൻ പിടിക്കുമ്പോഴാണ് നമ്മൾ വലിയ വലിയ മോട്ടർ സംബന്ധം അതായത് എഞ്ചിനുള്ള ബോട്ടുകൾ ഉപയോഗിക്കുന്നത് കാരണം എന്നു വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി അത് എത്രയും എത്രയും മീനുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുകൊണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആ വലുപ്പത്തിനനുസരിച്ചുള്ള ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് കാരണം ഇതിനകത്ത് നമ്മൾക്ക് പല തരത്തിലുള്ള ബോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയും കാരണം കാരണം ഇത് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഉള്ളതാണെങ്കിലും ബോട്ടെന്നു പറയുന്നത് ചെറിയൊരു അത്യാവശ്യം നമുക്കൊരു രണ്ട് പേർക്കിരിക്കാനും അത്യാവശ്യം മൽസ്യങ്ങളെ പിടിക്കാനുള്ളൊരു സ്ഥലമുള്ളത് ചെറിയ ബോട്ടാണ് എനിക്കും ഉള്ളത് നമ്മൾ കൂടുതലും ഈ ആലപ്പുഴ സൈഡിലൊക്കെ കാണുന്നതാണെങ്കിലും പല തരത്തിലുള്ള ബോട്ടുകളുണ്ട് അതായത് ഇനി ഇനിയിപ്പോൾ ഇനി ഇങ്ങനത്തെ ബോട്ടൊന്നും ഇല്ലെങ്കിൽപ്പോലും നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ച് മീനുകളെ പിടിക്കാൻ പിടിക്കാനും പിന്നെ അതിലൊരോരോ മാറ്റങ്ങൾ നമുക്ക് മീനിനെ പിടിക്കുന്നതിനുള്ള ഓരോ തരത്തിലുള്ള നീക്കങ്ങളും രീതികളും നമുക്ക് മാറ്റാൻ കഴിയും കാരണം ഈ ഈ മത്സ്യം ഈ പല തരത്തിലുള്ള നമ്മൾ മീൻ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് തൻ്റേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൈയ്യിലിരിക്കുന്ന മീൻ പിടിക്കാൻ ഈ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ കുറവായിരിക്കാം ചിലപ്പോൾ ഒരു ചൂണ്ടയേ കാണത്തുള്ളുവായിരിക്കും ചില ആൾക്കാരുടെ കയ്യിൽ വല കാണുമായിരിക്കും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന മത്സ്യത്തിന് ഏറ്റവും പലതരത്തിലുള്ള മത്സ്യ നിർമ്മാണമായ ഓരോരോ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെതന്നെ നമ്മൾക്ക് പല തരത്തിലുള്ള പേരുകൾ നമ്മൾ ഈ മത്സ്യത്തിന് നമ്മൾ ഉയോഗിക്കാറുണ്ട് കാരണം ഒറ്റ മീൻ പിടിക്കുന്നതിലൂടെ നമുക്ക് പല നേട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു മീൻ പിടിക്കാൻ നമുക്കൊരവസരം കിട്ടുക എന്ന് പറയുന്നുള്ളതൊരു വലിയൊരു കാര്യമാണ് കാരണമെന്നു വെച്ചാൽ നല്ലൊരു ഒരു ഹോബിയാണ് ഫിഷിംഗ് എന്നൊക്കെ പറയുന്നത് അതുപോലെതന്നെ നമ്മൾ ബോട്ടുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യമെന്താണ് എന്നു കരുതിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ബോട്ടുകളുണ്ടായിരിക്കാം പിന്നെ എത്ര തരത്തിലുള്ള ബോട്ടുകൾ എന്ന് നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കാണത്തില്ല എന്ന് എന്തിരുന്നാലും നമുക്ക് ബോട്ട് എത്രയെണം നമുക്ക് കൈവശം ഉണ്ടാകണം നമ്മുടെ എത്രത്തോളം മീൻ പിടിക്കാറുണ്ട് അപ്പം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അത് ഉദ്ദേശിക്കാറുള്ളത് കാരണം മീൻ പിടിക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നയോരോ കാര്യങ്ങൾ നമുക്ക് അതിൽ നമുക്ക് ഏതാനും തരത്തിലുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മൾ പലതരം നമ്മൾ ബോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് അതായത് ഒരു വഞ്ചിപോലത്തെ വഞ്ചിപോലത്തെ ചുമ്മാ തുഴയുന്നപോലത്തെ കാണും പിന്നെ മോട്ടറുള്ള ടൈപ്പ് കാണും പിന്നെ കുറച്ച് കുറച്ച് വലിയത് ഇത് കാണും അത് നമുക്ക് വലകൾ വീശാനുള്ള ഒരു ഒരു പാകത്തിനുള്ള ബോട്ടുകൾ കാണും പിന്നെ ഇത്രയും ലക്ഷക്കണക്കിനുള്ള മീനുകളെ കോരാനുള്ളൊരു സെറ്റപ്പുള്ള ബോട്ടുകൾ കാണും എല്ലാതരത്തിലുള്ള ബോട്ടുകളും നമ്മുടെ ഓരോ തരത്തിലുള്ള കൈവശം നമ്മുടെ കൈകളിലുണ്ടാകും കാരണം ബോട്ടുകളുടെ ഒരളവനുസരിച്ചാണ് നമ്മൾ മീനുകളെ അതായത് മത്സ്യങ്ങളെ പിടിക്കാൻ നമുക്ക് ഉപകാരപ്രദമാകുന്നത്